ഇവിടിപ്പം നമ്മുടെ ഡോക്ടർമാർ ശുചിത്വമുള്ള വാർഡുകൾ ആവശ്യത്തിന് കിടക്കകൾ അതൊക്കെന്താണ് പറയാ എല്ലാം ഹോസ്പിറ്റലിൽ ഉള്ളതാണ് പക്ഷേ ഇതും കൊണ്ടൊന്നും ഇവർക്കെന്താണ് ജനങ്ങളുടെ ആവശ്യം നമുക്ക് നിറവേറ്റാൻ കഴിയുന്നില്ല കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ജനങ്ങൾക്കെന്തങ്കിലും അസുഖം വരുവാണെങ്കിൽ തന്നെ അവരോടി ചെല്ലുന്നത് ആകെ ആശ്രയിക്കുന്ന ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരെയാണ് ഇപ്പോൾ പാവപ്പെട്ട ജനങ്ങളും ഉണ്ട് പണക്കാരുമുണ്ട് ഈ പാവപ്പെട്ട ജനങ്ങളെ സംബന്ധിച്ചെടുത്ത് എന്താ പറയാ ഗവൺമെൻറ്റ് ഹോസ്പിറ്റൽ ആണ് അവർക്ക് എളുപ്പം എന്ന് പറയുന്നത് കാരണം പൈസ ചിലവും അധികം കുറവായിരിക്കും പക്ഷേ വൃത്തീൻ്റെ കാര്യത്തിലൊക്കേ പറയാണെങ്കിൽ അവർക്ക് എന്താ കിടക്കാൻ ബെഡും കാര്യങ്ങളെല്ലാം ഉണ്ടാവും പക്ഷേ വാർഡ് ഉണ്ടാവും പക്ഷേ വാർഡിന് കിടക്കയും ഉണ്ടാവും പക്ഷേ എന്താ ഒരു ഒരു ക്ലീനില്ലാത്ത ഒരിതാണ് ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ എന്ന് പറയുന്നത് ആ സമയത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെയാണെങ്കിൽ നമുക്കെന്താ പറയാ നല്ല ക്ലീനിങ് ഒക്കെയായിട്ടുള്ള നല്ല ഹോസ്പിറ്റലായിരിക്കും അവർ അത്യാവശ്യം നല്ല പരിപാലിക്കുന്ന ഡോക്ടർമാരും സ്റ്റാഫ്മാരും എല്ലാവരും ഉണ്ടാവും പക്ഷേ എന്താന്നു വെച്ചാൽ അവർക്ക് താങ്ങാൻ പറ്റാത്തതിൽ അപ്പുറം ഉള്ള കാര്യംന്നു പറയാണെങ്കിൽ തന്നെ അവരുടെ എന്താ ഭയങ്കര പൈസയാണ് എന്നുള്ളതാണ് അവരെ നമ്മളിപ്പം അഡ്മിറ്റായി ഇറങ്ങി വരുവാണേൽ തന്നെ നല്ല പൈസയാവും എന്നുള്ളതാണ് വേറൊരു കാര്യംന്ന് പറയുന്നത് ആ സമയത്ത് തന്നെ ഇപ്പെന്താ പറയാ ഇതൊക്കെ നമുക്ക് മെച്ചപ്പെടുത്തി വേണമെങ്കിൽ കൊണ്ടുവരാം അതിനുവേണ്ടി എന്താ പറയാ ഒറ്റപ്പെട്ട പ്രദേശത്ത് താമസിക്കുന്ന കുറേ ജനങ്ങൾ ഉണ്ടാവും അവർക്കൊക്കെ ഹോസ്പിറ്റലിൽ പോവാൻ ഭയങ്കര താമസമായിരിക്കും ഭയങ്കര പാടായിരിക്കും അപ്പം ഇവരൊക്കെന്താണ് പട്ടണത്തിലെ ഹോസ്പിറ്റലിലോട്ട് പോകാൻ പോകാൻ പോകും അപ്പം എന്താ അവർക്ക് അവർക്ക് ഹോസ്പിറ്റല് ഇല്ലാത്തതിൻറ്റെ അവർക്കെന്താ ഭയങ്കര തടസ്സപ്പെടലാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് പറയുന്നത് അതുപോലെ തന്നെ അവരുടെ ഒറ്റപ്പെട്ട പ്രദേശത്ത് ഹോസ്പിറ്റലുകൾ കൊണ്ട് വരുവാണെങ്കിൽ അവർക്ക് നല്ല സൗകര്യം ആയിരിക്കും അതുപോലെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് മെച്ചപ്പെടുത്താനുണ്ട് ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ഇങ്ങനെ പറയാൻ വേണ്ടീട്ട്